ഞാൻ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടുതൊട്ട് വായിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരാളാണ് ഞാൻ ഞാനൊരു പത്രം കിട്ടിയാൽ വരെ അത് മുഴുവനായിട്ടിരുന്ന് വായിക്കും ഒരിത് വിടാണ്ട് ഞാൻ മുഴുവനായിട്ടിരുന്ന് വായിക്കും എനിക്ക് അത്രക്കിഷ്ടമാണ് വായിക്കാൻ പണ്ടൊക്കെ ലേബർ ഇന്ത്യയൊക്കെ മേടിച്ച് വരുമ്പോൾ ലേബർ ഇന്ത്യെല് ഞാൻ എൻ്റെ ക്ലാസ്സ് മാത്രമല്ല ബാക്കി എല്ലാം ഞാൻ വായിക്കും ചെറിയ ചെറിയ ഹിൻറ്റുകളുള്ളതും എല്ലാം ഞാൻ വായിക്കും എനിക്കത്രേം ഇഷ്ടമാണ് വായിക്കുന്നത് അതായത് കളിക്കുടുക്ക ബാലരമ ബാലഭൂമി എല്ലാം വായിക്കും ഞാൻ അതൊക്കെ വായിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എൻ്റെ പുസ്തകം ഒരുപാട് പുസ്തകം എൻ്റെ വീട്ടിലുണ്ട് കുറെയൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എനിക്കിപ്പോൾ അതായത് ക്ലാസ്സിലൊന്നും പോവാത്ത സമയത്ത് ഞാൻ ലൈബ്രറീല് പോയിട്ട് ബുക്ക് വായിക്കാനായിട്ട് പോവും അവിടെ വൈകുന്നേരം വരെ അവിടെ സ്പെൻഡ് ചെയ്യും എന്നിട്ടും എനിക്ക് മതിയാവൂല അത്രക്കും വായിക്കാൻ ഭയങ്കരിഷ്ടമാണ് ഓരോ കഥകളും അതായത് കവിതകളും അങ്ങനെയുള്ളതൊക്കെ വായിക്കാൻ ഭയങ്കരിഷ്ടമാണ് കൂടുതൽ എനിക്ക് ഇംഗ്ലീഷിൽ ഇതൊക്കെയാണ് വായിക്കാനിഷ്ടം അങ്ങനെ വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടന്ന് ഇംഗ്ലീഷ് പറയാനുള്ളിതും കിട്ടും നമുക്ക് മനസിലാവൂം ചെയ്യും അതുകൊണ്ട് ഇംഗ്ലീഷ് ഞാനിപ്പോൾ കൂടുതലായിട്ടും വായിക്കാൻ ശ്രമിക്കുന്നത്